ഹലോ ഡോക്ടർ ആ ഇത് തൊണ്ട വേദനയും പനി ആയത് കൊണ്ട് ഞാൻ ശ്രുതി ആണ് ഡോക്ടർ ശ്രുതി ആണ് സംസാരിക്കുന്നത് ആ ഡോക്ടർ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പറഞ്ഞ് വിട്ടതാണ് തൊണ്ട വേദനയും പനി ആയത് കൊണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്

ആ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയി

ഇല്ല പനിയും മാറുന്നില്ല തൊണ്ട വേദനക്കും കുറവില്ല അയ്യോ മാം ഞങ്ങൾക്ക് അർജെൻ്റ് ആയിരുന്നു മാം ഇല്ല മാം ഇത് ആ അത്രക്കും എമർജൻസി ആണ്

ഓ ഓ ഓ ആ എമർജൻസി ആണ് മാം ആ ആ

ആ അത് തൊണ്ടയിൽ പഴുപ്പുണ്ട് പിന്നെ പനി കൂടാനുള്ള കാരണം അത് തന്നെയാണ് പറഞ്ഞു അപ്പോൾ തൊണ്ട സ്കാൻ ചെയ്യാൻ ആണ് പറഞ്ഞത്

ആ ആ ഓക്കേ മാം ആ നാളെ യെസ് യെസ് മാം ആ ആ ഓക്കേ എടുക്കാം ആ ഓക്കേ എടുക്കാം മാം അപ്പോൾ അതിന് മുമ്പേ ഒരിക്കലും നോക്കാൻ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ലെ മാം എമർജൻസി ആയിരുന്നു കുറച്ച്

മാം എമർജൻസിയാണ് എമർജൻസി ആയത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ആ ഭക്ഷണം കഴിക്കാനൊക്കെ ഓക്കേ ഓക്കേ അതിന് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ മാം